എൻ്റെ വീട്ടിലെ സഹോദരങ്ങളെന്ന് പറയുമ്പോൾ എന്നേയും കൂട്ടിയിട്ട് ഞാനാണ് ഏറ്റവും ഞാനാണ് മിഡിൽ വൺ ഓക്കെ അപ്പോൾ എൻ്റെ മൂത്തത് ഏട്ടനാണ് താഴെ ഉള്ളത് അനിയത്തി അപ്പോൾ അപ്പോൾ സാ ഇപ്പോൾ സാമ്യതയെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഡിഫറൻറ് ആണ് അവരാണ് ഏകദേശം ഒരേ പോലെ ചെയ്യാറ് വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും പറയണത് കേട്ട് അനുസരിച്ച് അവരാണ് നടക്കാറ് ഞാനങ്ങനെയല്ല ഞാൻ ഭയങ്കര എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് കാരണം ഏട്ടൻ്റെ പേരും അനിയത്തീൻ്റെ പേരും സേയ്മാണ് പക്ഷെ എൻ്റെ മാത്രം ഡിഫറന്റാണത് അവരറിഞ്ഞിട്ടതാണോ എനിക്ക് അറിയില്ല അപ്പോൾ പറയുന്നതങ്ങനെ തന്നെയാണ് ഞാൻ ഭയങ്കര ഡിഫറൻറ് ആണ് ഏട്ടനാണെങ്കിലും അത്യാവശ്യം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കും അത്യാവശ്യം അത്യാവശ്യം എന്താ പറയുക ആക്റ്റീവാണ് പക്ഷെ ഞാനും ആക്റ്റീവാണ് എന്നാലും എന്നാലും അവനിങ്ങനെ വീട്ടുകാരിൻ്റെ അനുസരിച്ച് ഇങ്ങനെ നടക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ച് ചിരിച്ചങ്ങനെ ഉഴപ്പി നടന്ന് അങ്ങനെ ഉള്ള ടീമാണ് അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഏട്ടൻ പണ്ട് നന്നായി ഞാനും ഏട്ടനും അനിയത്തിയൊക്കെ സെയിം സ്കൂളിലാ പഠിച്ചത് അപ്പം ഏട്ടൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുന്ന കൊണ്ട് ക്ലാസ്സിൽ ഫസ്റ്റായത് കൊണ്ട് തന്നെ ടീച്ചേഴ്സിനെല്ലാവർക്കും അവനെ അറിയാമായിരുന്നു അതിന് ശേഷം ഞാൻ ഞാനവിടെ ചേർന്നു ഞാനവിടെ ചേർന്നപ്പോൾ ഞാനൊട്ടും പഠിക്കില്ല ഒന്നും പഠി ഒന്നും പഠിക്കില്ല പറഞ്ഞാൽ ഒന്നും പഠിക്കില്ല കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് പഠിക്കാൻ ഭയങ്കര മടി അതുകൊണ്ട് ഒന്നും പഠിക്കില്ല ഹോം വർക്കും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അപ്പോൾ വീട്ടുകാരിനെ എപ്പോഴും വിളിക്കുമായിരുന്നു ടീച്ചേഴ്സ് അവനങ്ങനെയാണ് ഒന്നും പഠിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ച വീട്ടുകാർക്കെപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ് അവൻ പഠിക്കണില്ലായെന്നൊരു ഇത് കൊണ്ട് പക്ഷേ എന്നാലും എന്നെ എല്ലാവർക്കും അറിയാം കാരണം ഞാൻ പഠിക്കുന്നില്ലെങ്കിലും ഞാൻ എല്ലാത്തിലും ആക്റ്റീവാണ് സ്പോർട്സാണെങ്കിലും ആർട്സാണെങ്കിലും എല്ലാത്തിലും ആക്റ്റീവാണ് അപ്പം അങ്ങനെ ഒരു ഒരു ഒരു ഡിഫറെൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ സ്കൂളിൽ പോയി അന്വേഷിച്ചാക്കാട്ടിലും കൂടുതൽ എന്നെയാണ് കൂടുതൽ അറിയുക സ്കൂളിലാണെങ്കിൽ അനിയത്തി ചേർന്ന കൊണ്ട് തന്നെ അവളോട് ആദ്യം സംസാരിക്കണത് എന്നെക്കുറിച്ചായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നത് കൊണ്ടോ നടന്നത് കൊണ്ടാണോ ഞാനിത്ര ഫേമസായത് എന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിഫറെൻസ് ഞങ്ങൾ മൂന്നാളും തമ്മിലുണ്ട്